പത്തു മുപ്പത് നാൽപ്പത് പേർക്ക് എല്ലാം ഭക്ഷണം ഉണ്ടാക്കുന്ന നമുക്കൊരു ഹോട്ടലുണ്ട് അപ്പം എത്ര പേർ ഒരു ദിവസം വരുമെന്നു പറയാൻ കഴിയില്ല ഒരോർക്ക് പത്തു നാൽപ്പത്തഞ്ചാളെല്ലാം ഉണ്ടാകും ഒരോർക്ക് പത്തു പത്താളും ഉണ്ടാകും പത്തു പേർക്കു വേണ്ടുന്ന ചോറ് വെക്കണം ചോറാക്കണം മീൻ കറി വെക്കണം മീൻ പൊരിക്കണം വറവുണ്ടാക്കണം കച്ചംമ്പറാക്കണം അച്ചാർ പിന്നെ സാമ്പാർ ഇതെല്ലാം കൂടിയിട്ട് ഭക്ഷണം കൊടുക്കണം പത്തു ഭക്ഷണമുണ്ടാക്കണം മീൻ മുറിക്കണം പണി തീരാ കുറേ ജോലി തീരാത്ത ജോലി എന്താണെന്ന് എത്ര പേർ വന്നാലും ഭക്ഷണം പത്തു നാൽപ്പത്തഞ്ച് മുപ്പത്തഞ്ചാളെല്ലാം ഉണ്ടാകും ഓരോരിക്ക എപ്പോഴും ഇതാ ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലി തന്നയാ നമുക്ക് ഓരോരിക്കാ അഞ്ചാളുണ്ടാകും ഓരോരിക്കാ പത്താളുണ്ടാകും അതങ്ങനെ പറയാൻ പറ്റുന്നില്ല ഒരു അൻപത് ചോറ് പോയ ദിവസമുണ്ട് പിന്നെ അൻപത് പേർക്ക് വേണ്ടുന്ന ഭക്ഷണം പെട്ടെന്നു ചോറ് തീർന്ന് കഴിഞ്ഞെങ്കിൽ പെട്ടെന്നു പച്ചരി വെക്കും കൂടുതൽ പേർ വന്നു പറഞ്ഞു കഴിഞ്ഞെങ്കിൽ വേഗം ചോറ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു ഇല്ലെങ്കിൽ കുറേ സമയം എടുക്കും ഇല്ലെങ്കിൽ ഭക്ഷണം ഇല്ലാ പറഞ്ഞിട്ട് ആൾക്കാർ പോകും അപ്പം നാൽപ്പത്തഞ്ച് പേർക്കെല്ലാം ഭക്ഷണം ഉണ്ടാക്കും അതൊന്നും ഒരു സംഗതിയല്ല നമുക്ക് ടൗണിൽ പോയി മീൻ കൊണ്ടു വരണം മീൻ മുറിച്ചിട്ട് മീൻ കറി വെച്ചിട്ട് അതെല്ലാം ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കുന്നല്ലേ ഒറ്റക്കു തന്നെ എടുക്കണം വെള്ളം ചോറ് വെക്കണമെങ്കിൽ കിണറ്റിൽ നിന്നു വെള്ളം കോരി കൊണ്ടു വന്നിട്ടു വേണം ചോറ് വെക്കണമെങ്കിൽ പിന്നെ ഇത് റെഡി എല്ലാം ആക്കിയിട്ട് അടുപ്പിൽ വിറക് കത്തിച്ചിട്ട് വേണം ചോറ് ഉണ്ടാക്കണമെങ്കിൽ കറി ഇതെല്ലാം മാത്രമേ ഗ്യാസിൽ ഉണ്ടാക്കലുള്ളൂ ബാക്കിയെല്ലാം അടുപ്പിൽ അടുപ്പിൽ തന്നെ ഉണ്ടാക്കല് വിറക് കത്തിച്ചിട്ട് ചോറാക്കണമെങ്കിൽ സമയം പിടിക്കും രാവില ഇട്ട അരി വേകണമെങ്കിൽ ഉച്ച സമ ഉച്ച പന്ത്രണ്ട് മണിയാകണം അത്ര വേവുള്ള അരിയാണ് ചോറ് വെക്കുന്നത് മീൻകറിയെല്ലാം എളുപ്പത്തിൽ ആണ് വെച്ചിട്ട് വെച്ചിട്ട് എല്ലാം വെക്കുന്ന വേഗമാണ് വേറെ നാലു തരം കറിയും ചോറും എപ്പോഴുണ്ടാക്കണം അതുകൊണ്ട് വലിയ സംഗ തിയൊന്നും ആയിട്ട് തോന്നുന്നില്ലത് ഭക്ഷണം ഉണ്ടാക്കുന്നത് വേഗം ചോറ് തീർന്നു കഴിഞ്ഞെങ്കിൽ വേഗം പിന്നെ കുറേ ചോറ് ഉണ്ടാക്കും നമ്മൾ ഇതേ പണി രാവിലെ തന്നെ ഉച്ച വരെ ചോറ് ഭക്ഷണമുണ്ടാക്കുന്നതു തന്നെ പണി ഒരു സന്തോഷമെന്നു പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കലും കൊടുക്കലും അതു തീരുമ്പം രണ്ടാമതുണ്ടാക്കലും പിന്നെ പിന്നെ സന്തോഷമല്ലേ ആൾക്കാർ വരുന്നതും ആൾക്കാർ വരാതിരിക്കുമ്പം മാത്രമേ സങ്കടമെല്ലാം ആൾക്കാർ കൂടുതൽ വരുമ്പോൾ ഭക്ഷണമുണ്ടാക്കിയിട്ട് അതു കൊടുക്കുന്നതും അതു തീരുന്നതും വലിയ സന്തോഷമായാലുള്ള കാര്യം തന്നെ കൂടുതൽ നാല് അഞ്ച് ആറ് തരം കറി ചോറ് ഓരോരോ ദിവസം ഒന്നും ഉണ്ടാകില്ല ഒരു ദിവസം വേഗം തീരും ചോറ് അന്നേരം വേഗം ആദ്യമുണ്ടാക്കും ചോറ് പച്ചരിച്ചോറ് വെക്കും പുളിശ്ശേരി ആക്കും മീൻകറി തീർന്നെങ്കിൽ പിന്നാദ്യം ചാറാക്കും അതിൽ നിന്നാ മീൻ പൊരിച്ചത് പൊരിച്ചത് ഒരിക്കൽ ത് ഒരിക്കലത്തെ തീർന്നെങ്കിൽ പിന്നെ രണ്ടാമത് പൊരിക്കണം പിന്നെ അതു കഴിഞ്ഞാൽ പിന്നെ വറവു തീർന്നു കഴിഞ്ഞെങ്കിൽ പിന്നെ രണ്ടാമത് വറവാക്കണം നല്ലൊരു അനുഭവം തന്നെ ജീവിതത്തിൽ ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെ അതെല്ലാം ആൾക്കാർ വരുമ്പോൾ അതൊരൊരു സന്തോഷമുള്ള കാര്യം തന്നെ നമുക്ക് കൂടുതലായിട്ട് പറയുകയെന്നു വെച്ചാൽ വിറക് ഇപ്പോഴത്തെക്കാലത്ത് വിറക് കിട്ടാനും കഷ്ടം തന്നെ അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഇല്ലുല്ലേ ഭക്ഷണമുണ്ടാക്കാനത് നമുക്ക് വലിയ സംഗതിയായിട്ട് തോന്നുന്നില്ല ടൗണിൽ പോയിട്ട് വിറക് കൊണ്ടു വരണം എന്നിട്ടടിയാക്കണം അതെല്ലാം വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ട് ഭക്ഷണമുണ്ടാക്കുന്നതിലൊന്നും അല്ല ഇത്രയേ ഉള്ള ആൾക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുത്തിട്ട് അതു തീരുന്നില്ല ഒരു സന്തോഷം അതു വേറെ തന്നെ വേറെ ഒരു കാര്യം തന്നെ കൂടുതൽ പിന്നെ ദിവസമത് ചോറും കറിയും ഉണ്ടാക്കുമ്പോൾ നമുക്കത് വലിയ സംഗതിയായിട്ട് തോന്നുന്നില്ല ആ അത്രയേ എത്ര വട്ടം വേണങ്ങും ചോറ് വെക്കാം മൂന്നു വട്ടം ചോറ് വെച്ച ദിവസം ഉണ്ട് ഓരോരോ ദിവസം കൊടുക്കാൻ വേണ്ടി തികയാത്തതു കൊണ്ട് പിന്നെ അതിൻ്റെ കറി ചോറ് ഇതു തന്നെ രാവിലെ ഉച്ചയാകുവോളം ഇതേ പണി ചോറ് വെക്കലും കറി വെക്കലും പിന്നെ ജീവിതത്തിലതല്ലാ ഇനി ഇപ്പം അറിയാത്ത കാലത്തെല്ലാം അതെല്ലാം ഒരോർമ്മയായിട്ട് അതൊരു സന്തോഷം അത്ര തന്നെ ഹോട്ടലിലെ ഫുഡ്ഡാകുമ്പം ആൾക്കാർക്ക് ഭക്ഷണമെത്ര ഉണ്ടാക്കിയാലും അതു തികയുന്നില്ല ഉണ്ടാക്കി വെച്ചെങ്കിൽ അത് ആൾ ഉണ്ടാകില്ല ഉണ്ടാക്കാത്തതെന്നു ആളുണ്ടാകും അപ്പം ആ ഒരു കൂടുതൽ ചോറ് വെച്ചാൾക്കാർക്ക് ചോറും കറിയും വെക്കലും കൊടുക്കലും അതു വലിയ സന്തോഷമുള്ള കാര്യം തന്നെ ബോറിൻ്റെ വെള്ളമാണ് നമുക്കില്ലത് അപ്പോൾ കിണറിൻ്റെ വെള്ളം കൊണ്ടു വന്നിട്ട് ഇതാക്കുമ്പം അതിനുള്ള സമയമെടുക്കും എന്നെങ്കിലും അത് എന്തൊരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യം ചിന്തിക്കലില്ല ചോറും കറിയും വന്നവർ ആൾക്കാർ വരുമ്പം അവർക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമെന്നില്ല ആ ഒരു ഇതിൽ ചോറും കറിയും വെച്ചു കൊടുക്കലാണെന്നു പിന്നെ ചോറും കറിയും വെച്ചു കൊടുക്കും കറി വെക്കുന്നതൊന്നും വലിയ സംഗതിയായിട്ടു തോന്നുന്നില്ല മീനുണ്ടെങ്കിൽ മീൻ മുറിക്കുക കറിക്ക് ഗ്രൈന്ഡറിൽ ഇട്ടിട്ട് കറിക്കരക്കും മീൻ കറി വെക്കും മീൻ ഫ്രൈ ആക്കും അതൊന്നും വലിയ പണിയല്ല ഇപ്പം പിന്നെ മിക്സി കാര്യം അതെല്ലാം ഇല്ലതു കൊണ്ടു ഭക്ഷണമുണ്ടാക്കാനൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടു തോന്നുന്നില്ല എത്ര തരം കറി വേണമെങ്കിലും വെക്കും അതെല്ലാം വലിയ ഇഷ്ടമാണ് ചോറ് വെക്കാനൊന്നും വലിയ സംഗതിയല്ല ചോറ് വേകുക വെള്ളത്തിൽ തീയാക്കിയിട്ട് വെള്ളത്തിൽ അരിയിട്ടെങ്കിൽ ഈ ചോറാടെ വേകുമല്ലോ അപ്പം പിന്നെ അതൊന്നും വലിയ സംഗതിയായിട്ടു തോന്നുന്നില്ല ചോറെല്ലാം ഇഷ്ടം പോലെ പെട്ടെന്നു പറയുമ്പം അതെല്ലാം ചെയ്യാൻ പറ്റുന്നു നമ്മുടെ ജീവിതം തന്നെ ഇതേ ഇതു തന്നെ അതുകൊണ്ട് പിന്നെ അത് അത് വലിയ സംഭവമല്ല ഫുഡ്ഡുണ്ടാക്കുന്നതൊന്നും നാല് തരം കറിയും ചോറും എല്ലാം ഉണ്ടാക്കും ദിവസം മീൻ കറിയും വെക്കണം സാമ്പാറാക്കണം മീൻ പൊരിക്കണം വറവുണ്ടാക്കണം ഈ കച്ചമ്പറുണ്ടാക്കണം അതെല്ലാം ദിവസമെല്ലൊരു ജോലിയിലെ ഭാഗമായിട്ട് വരുന്നു ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊടുക്കുന്ന ജോലി തന്നെ എൻറ്റേത് അതൊരു വലിയ സന്തോഷം തന്നെ ആൾക്കാർ വരുന്നതും നമ്മളുണ്ടാക്കിയ ഭക്ഷണം അവർ കഴി കഴിക്കുമ്പോൾ അതിലുള്ളൊരു സന്തോഷം ആന്ന ഫുഡ് നല്ലതുണ്ട് എന്നു പറയുമ്പോൾ അതു കേൾക്കുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷം അതൊന്നു വേറെ തന്നെയല്ലേ അങ്ങിനില്ലൊരു കാര്യം തന്നെ സന്തോഷമുള്ള കാര്യം അടുപ്പിൽ ഇപ്പം എല്ലാവർക്കും വിറക് കത്തിച്ചിട്ട് അടുപ്പിലുണ്ടാക്കാനെല്ലാം വലിയ ബുദ്ധിമുട്ടല്ലേ നമ്മൾ പിന്നതു പണ്ടേ അങ്ങനെ ശീലമായതു കൊണ്ട് അങ്ങനെ അതൊന്നും ഒരു വലിയ പ്രശ്നമായിട്ടു തോന്നുന്നില്ല വറവിനെല്ലാം മുറിക്കണം സാമ്പാറിനു മുറിക്കണം കച്ചംബറിനു മുറിക്കണം അതെല്ലാം പിന്നെ അതെല്ലാം വലിയ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ പണിയെല്ലാം ചെയ്യാനെല്ലാം അങ്ങനെ എളുപ്പത്തിലാണത് സാറുണ്ടാക്കാൻ വേഗം ചെയ്യാൻ പറ്റുന്നതെല്ലാം അതു വേഗം സാറുണ്ടാക്കും സാമ്പാർ തീർന്നെങ്കിൽ വേഗം സാറുണ്ടാക്കും എന്നിട്ട് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കും അന്നവർ മടങ്ങി പോകുമ്പം അതൊരു ഇതല്ലേ സമാധാനം അതുകൊണ്ട് അന്നവർ ഭക്ഷണം കഴിച്ചിട്ട് പോയി അവർക്ക് നല്ല സന്തോഷമായി കഴിഞ്ഞെങ്കിൽ അതു നമ്മളുടെ സന്തോഷമല്ലേ വലിയ